കൂടുതലായിട്ടും നമുക്ക് വസ്ത്രം കഴുകാന് ഉപയോഗിക്കുന്ന ഒരു സമയം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൂടുതലായിട്ടും ഉണങ്ങാന് ഏളുപ്പമിള്ളൊരു സമയം എന്നു പറഞ്ഞുകഴിഞ്ഞാൽ വേനല്ക്കാലം തന്നെയാണ് വേനല്ക്കാലത്താണെങ്കിൽ നമുക്ക് അധികനേരം നമുക്ക് തുണിയൊന്നും വെയിലത്ത് ഇടണ്ടൊരു ആവശ്യം ഇല്ല കാരണം പെട്ടെന്ന് തന്നെ ചിലപ്പം ഉണങ്ങി കിട്ടാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും വെള്ളം നമുക്ക് ഓവറായിട്ട് ചിലവാകുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാഷിംഗ് മഷീനിലൂടെ തന്നെയാണ് ഇപ്പം വാഷിംഗ് മഷീനിലൂടെ നമ്മൾ ഒരുവട്ടം കഴുകി പിന്നെ അതിനൊരേഴ് എട്ട് പത്ത് പത്ത്പതിനഞ്ച് ലിറ്റർ വെള്ളം എന്തായാലും നമുക്ക് ഒരുവട്ടം കഴുകാന് തന്നെ വേണം അപ്പം അത് രണ്ടും മൂന്നും വട്ടം കഴുകിയാൽ മാത്രമേ തുണിയൊക്കെ വൃത്തിയാവുകയുള്ളൂ അപ്പോൾ വെള്ളം ധാരാളം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാഷിംഗ് മഷീന് ഉള്ള സമയത്താണ് നമ്മള് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കല്ലില് അലക്കുകയാണെങ്കിൽ ഇത്രയും വെള്ളം നമുക്ക് ആവിശ്യമില്ല പെട്ടെന്നു തന്നെ അലക്കിത്തീരും ചെളിയും കാര്യങ്ങളൊക്കെ പോകാന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും നല്ലത് നമുക്ക് കല്ലില് അലക്കുമ്പോഴാണ് അതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത് വാഷിംഗ് മഷീന് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജെസ്റ്റ് ഒന്ന് കലക്കി വിടുന്നതു മാത്രമേ ഉള്ളൂ പിന്നെ മറ്റ് കാലാവസ്ഥകളിൽ കൂടുതലായിട്ട് നമ്മൾ വാഷിംഗ് മഷീനിൽ അലക്കുകയാണെങ്കിൽ അതിൽ ഡ്രെയിൻ എന്നു പറഞ്ഞിട്ടൊരു ഓപ്ഷന് ഉണ്ട് അത് ചെയ്യുകയണെങ്കിൽ നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ പിഴിഞ്ഞു കളയുന്ന ഒരു സംവിധാനം അതിനകത്ത് ഉള്ളതു കൊണ്ട് നമുക്ക് ടെറസിലോ മറ്റ് ഭാഗങ്ങളിലോ ഇട്ട് ഉണക്കാവുന്നതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ഉണക്കാറുള്ളത്